ഇപ്പോൾ എഡിറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ബുക്കിൽ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും മാനേജ് അത് കഴിയുമ്പം നമ്മൾ പിന്നെ ലാപ്പിലോട്ട് എങ്ങാനും കയറ്റി കഴിയുമ്പോൾ അത് അവിടെ എന്തെങ്കിലും തെറ്റൊക്കെ വരും അപ്പോൾ അത് അതിൻ്റെ വേണ്ട വിധത്തിൽ അവിടെ നിന്ന് തന്നെ തിരുത്തി എല്ലാം കറക്റ്റ് ആണോ എന്നു ചെക്ക് ചെയ്ത ശേഷമാണ് എന്താ പറയുകയ ലാപ്പിലോട്ടൊക്കെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്തെങ്കിലും നെറ്റുണ്ടെങ്കിൽ അവിടെ നിന്നുതന്നെ തിരുത്തി പിന്നെ നമ്മൾ ആ ഒരു ഇത് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുള്ളൂ